മേ ഐ കം ഇൻ മാം ഗുഡ് മോർണിംഗ് മാം മാം എൻ്റെ പേര് ശ്രുതി എന്നാണ് ഞാൻ ഇവിടെ സെവൻത് സിയിലാണ് പഠിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ചെന്നൈയിലെ സ്കൂളിലേക്ക് മാറുവാണ് അപ്പോൾ എനിക്കൊരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു

ആ എൻ്റെ അച്ഛൻ ചെന്നൈയിലോട്ട് ട്രാൻസ്ഫർ ആയി അച്ഛൻ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത് ആ ഡോക്ടർ എംജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അതിന് അടുത്ത് തന്നെ ഉള്ള റെയിൽവേ മിക്സഡ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക്

ആ ഓക്കെ മാം ജൂലൈ പത്താംന്തീയോട് കൂടി പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ശരി ആയി മിസ് അവിടെ ആ റെയിൽവേ ക്വാർട്ടേഴ്സിലാണ് ശരി ആയത് ആ കൊണ്ടുവന്നു മിസ് ആ ത്രീ ഫോർ സിക്സ് ഫോർ

ആ രേഖ എന്ന് മിസ് ആ അതെ അതെ ആ ഓക്കെ ആ ഓക്കെ മിസ് താങ്ക് യു ആ പറഞ്ഞായിരുന്നു മിസ്